അതെ എന്തായിരുന്നു സാറേ വേണ്ടത് സാറിന് എന്തിൻ്റെ കൂടെ കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് ബിരിയാണി അതോ അപ്പം അങ്ങനെ എന്തെങ്ങിലുമാണോ ബിരിയാണി നെയ് ചോറ് ഐറ്റംസിൻ്റെ കൂടെയാണോ എന്തിൻ്റെ കൂടെയാണ് സാറിന് ബിരിയാണീൻ്റെ കൂടെയാണോ ബിരി ബിരിയാണീൻ്റെ കൂടെ നമുക്ക് മട്ടൻ ബിരിയാണിയുണ്ട് ചിക്കൻ ബിരിയാണിയുണ്ട് ബീഫ് ബിരിയാണിയുണ്ട് ഫിഷ് ബിരിയാണികൾ വരുന്നുണ്ട് വെജിറ്റേറിയൻ ബിരിയാണി വരുന്നുണ്ട് അതേപോലെ തന്നെ നെയ് ചോറിൻ്റെ നെയ് ചോറും ഇവിടെ നമുക്ക് സ്പെഷ്യൽ നെയ് ചോറാണ് ടോപ്ഫോമിൻ്റെ ഒരു പ്രത്യേകത നെയ് ചോറിലാണ് അപ്പം പിന്നെ നമുക്ക് ഗീ റൈസിൽ വരുന്നതാണ് മട്ടൻ സ്റ്റൂ വരുന്നുണ്ട് മട്ടൻ ചില്ലി വരുന്നുണ്ട് മട്ടൻ കറി വരുന്നുണ്ട് അതേപോലെ തന്നേ ബീഫും അങ്ങനെ തന്നെ നാലഞ്ച് ഐറ്റം ബീഫിന്റെയും വരുന്നുണ്ട് ചിക്കൻ ഐറ്റംസ് അതേപോലെ തന്നെ വരുന്നുണ്ട് ആ നമുക്ക് പിന്നെ ഡെലിവറി ഉണ്ട് പിന്നെ അല്ലാതെ നിങ്ങൾ ആ ഡെലിവറി വീട്ടിലോട്ട് ഡെലിവറിക്കാണോ അതോ സാർ ഇങ്ങോട്ടേക്ക് വരാനാണോ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് വരാനാണല്ലേ ഓക്കേ അതേ പിന്നെ കുറേ പേരുണ്ടാകുമോ അതോ സാർ മാത്രമാണോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സാർ അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് നമുക്കതിന് അതിനുള്ള ഓക്കേ അപ്പോൾ നമുക്ക് ചി ഓ ഓക്കേ ഓക്കേ പാർക്കിങ് സൗകര്യം ടേബിൾ സൗകാര്യം ഒക്കെ ഉണ്ട് അപ്പം സാർ വന്നാൽ മതി അപ്പോൾ സാറിന് ദി പിന്നെ നെയ് ചോറിൻ്റെ കൂടെ എന്താണ് വേണ്ടത് ചിക്കൻ ആണോ വേണ്ടത് ബീഫ് ആണോ വേണ്ടത് ചിക്കൻ ഐറ്റംസ് നമുക്ക് നാലഞ്ച് ഡിഷസ് ഉണ്ട് നമുക്ക് എല്ലാ ഡിഷസും വേണമെങ്കിൽ പിന്നെ സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം സാറിന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി വേണമെങ്കിൽ ഞാൻ ചിക്കൻ ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഒക്കെ ഒരു വാട്സ്അപ്പ് വാട്സ്അപ്പിലിട്ട് തരാം സാറിന് അപ്പോൾ സാർ ചൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇട്ട് തന്നാൽ മതി മ്മ്മ് ഓക്കേ സാർ പറഞ്ഞാൽ മതി ഇല്ല വേണ്ട സാർ ഓൾറെഡി ബുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ സാർ തലേ ദിവസം ഒന്ന് വിളിച്ച് ഒന്ന് പറഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല് നമുക്ക് ജസ്റ്റ് തലേ ദിവസം ഒന്ന് വിളിച്ച് ഇത്രയും പേരൊക്കെ എന്തായാലും ഇത്രയും പേരുണ്ടല്ലോ നമുക്കെന്തായാലും ഫുഡ് അത്രയും ഉണ്ടാക്കും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് സാർ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓർമിപ്പിച്ചാൽ മതി വിളിച്ചിട്ട് ഓക്കേ സാർ അങ്ങനെ ചെയ്താൽ മതി ഓക്കേ ആ ആയിക്കോട്ടെ സാർ താങ്ക് യൂ